ഹലോ ആ പശ മേത്രിയല്ലേ ആ ഞാനിവിടെ മുട്ടത്തൂന്നായിരുന്നു വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വഴി വെച്ച് കണ്ടപ്പോൾ ഞാനിങ്ങനെ സൂചിപ്പിച്ചായിരുന്നല്ലോ നമ്മൾ നമുക്ക് ഉള്ള വീടിൻറ്റെ കൂട്ടിൽ ഒരൂ മുറി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗസ്റ്റ് റൂം പോലെ അപ്പോൾ ഏകദേശം അതിൻറ്റൊരു ഏകദേശം എസ്റ്റീമേറ്റൊക്കെ എനിക്കൊന്ന് അറിയാൻ വേണ്ടീട്ടാണ് ഞാൻ വിളിച്ചത് വാതിലൊരെണ്ണം വേണോ രണ്ടെണ്ണം വേണോന്നുള്ളത് എനിക്കൊരു ചെറിയ കൺഫ്യൂഷനായിട്ടിരിക്കുക ഒന്ന് വന്ന് നോക്കി പറയുവായിരുന്നെങ്കിൽ നിങ്ങൾക്കതിൻറ്റെ എനിക്ക് സൈഡിലോട്ടും പുറകിലോട്ടും ഒരെണ്ണം കൊടുക്കണോന്നാണാഗ്രഹം ജനൽ രണ്ട് പാളിയുള്ള ജനൽ വേണം പുറകിൽ വാർക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വാർക്കുവാണെങ്കിലെ രണ്ടിൻറ്റെം റേറ്റ് പറയാവോ വാർക്കുവാണെലോ ഷീറ്റിടുവാണെലോ എത്ര ആവുമെന്നൊന്ന് പറയാവോ ആ ഹാ ഷീറ്റാണേലോ ആണല്ലേ നമുക്ക് വാർത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് മറ്റേതാവുമ്പം ഭയങ്കര ചൂടായിരിക്കത്തില്ലല്ലേ ഒത്തിരി വ്യത്യാസം വരാത്ത സ്ഥിതിക്ക് നമുക്ക് വാർത്ത് തന്നെ ചെയ്യാം ആ എന്നാൽ അപ്പം വന്ന് നോക്കിയിട്ടെനിക്ക് എസ്റ്റിമേറ്റെഴുതി തരണം അതായത് നമുക്കിപ്പം മുമ്പേ പറഞ്ഞത് പോലെ എന്നാക്കയാണ് വേണ്ടത് എത്ര രൂപയാണ് ഏകദേശം എന്നുള്ളൊരു എസ്റ്റിമേറ്റേ ഓരോന്നിൻറ്റെം ആയിട്ട് എഴുതി തരുവാണെങ്കിൽ ആണല്ലേ അത് കൂടത്തില്ലല്ലോ അല്ലേ ആ പിന്നെ നമുക്കെ ഈ പിന്നെ എനിക്ക് കരിങ്കല്ല് വെച്ച് ചെയ്യണം അതായത് കല്ല് വെച്ച് ചെയ്യണംന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെങ്ങനായിരിക്കും റേറ്റ് ആ അപ്പം ആ എന്നാൽ കരിങ്കല്ല് ഒത്തിരി റേറ്റ് ടിഫറൻസ് വരുമോ പൈസേടെ ഒത്തിരി ഡിഫ് അല്ലേ അപ്പോൾ കരിങ്കല്ലിൽ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി കാശാവുവായിരിക്കുവല്ലേ നമ്മൾ ഉദ്ദേശക്കുന്നാത്തൊന്നും ചിലപ്പോൾ നീക്കത്തിലായിരിക്കും ആണോ അങ്ങനാണേ നമുക്കാ കരിങ്കല്ലിൻറ്റെ ഡിസൈൻ കൊടുത്താലോ ആ അങ്ങനെ ചെയ്യാം അല്ലെ അപ്പോൾ അതിന് അതിനെന്തേലും ഈ ഇത് തച്ചു കൂലിയാവോ എങ്ങനെയാണ് അത് ആണല്ലേ ആ അപ്പോൾ നാളൊന്ന് വന്ന് കാണുമ്പോഴെ കുറച്ചുടൊന്ന് ഇതായിട്ട് പറയാലോ അപ്പോൾ എനിക്കൊന്ന് എഴുതീംകൂടെ തരുവാണെങ്കിലെസ്റ്റിമേറ്റ് അറിയാൻ വേണ്ടീട്ടായിരുന്നു ഓക്കെ അപ്പോൾ നാളെ രാവിലെ പോരെ ശരി